ഞങ്ങളെ ജില്ലയിൽ മൂന്ന് ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഹിന്ദുക്കൾ ഈ മൂന്ന് പേരുടെയും ആഘോഷങ്ങൾ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ ആഘോഷിക്കൽ ആഘോഷിക്കാറുണ്ട് ക്രിസ്ത്യൻസായിക്കോട്ടെ പെരുന്നാളാഘോഷിക്കും മുസ്ലിംസും പെരുന്നാളുകളാഘോഷിക്കും ഹിന്ദുക്കൾ ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന ഒരു ഐക്യമുള്ളൊരു ജില്ലയാണ് ഞങ്ങളെ തൃശ്ശൂർ ഞങ്ങൾ തൃശ്ശൂരിൽ തന്നെ ഏറ്റവും അധികം ആഘോഷിക്കുന്ന എല്ലാവരും ഒത്തൊരുമയോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം ഈ തൃശ്ശൂർ പൂരത്തിലാണേറ്റവും അധികം ആളുകൾ ആളുകൾ തൃശ്ശൂരിലേക്ക് വരുന്നതും തൃശ്ശൂരിൻ്റെ പൂരത്തിനും തൃശ്ശൂരിൻ്റെ ഭംഗി ആസ്വദിക്കാനാണ് അന്ന് ആ സമയങ്ങളിലേക്ക് വന്നത് അതേ സമയത്ത് തന്നെ ആണ് തൃശൂർ പാവർട്ടി തിരുന്നാളും നടക്കുന്നതപ്പോൾ രണ്ട് സ്ഥലങ്ങളിലും നല്ല തിരക്കുളള സമയമായത് കൊണ്ട് പെരുന്നാളും ഉത്സവവും ഐക്യത്തോടെയാണ് ഇവിടെ തൃശ്ശൂർ തൃശ്ശൂരിൽ നടക്കാറുള്ളത് അതു കൊണ്ട് ഇവിടെ ഉത്സവങ്ങളും പെരുന്നാളുകളും എല്ലാം നടക്കുമ്പോൾ തന്നെ മതങ്ങൾ മനസ്സിൽ മാറ്റിയും മനുഷ്യരാണ് ഒന്നിക്കുന്നത് മതങ്ങളിൽ നിന്നുള്ളൊരു കൺസെപ്റ്റ് പുറമെ ഉണ്ടെന്ന് തന്നെ ഉള്ളു പക്ഷേ മനുഷ്യരാണ് ഇതിൽ കൂടുതൽ ഐക്യത്തോടെ പോകുന്നത് ഐക്യത്തോടെ എല്ലാവരും ഒരുമയോടെ പൂരങ്ങൾ കാണാനും പെരുന്നാൾ കാണാനും ഒക്കെ വരുന്നത് പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടേ തൃശ്ശൂരിൽ എന്തും ഉള്ളൂ ഇതിപ്പം ഞാൻ പറയുന്നതൊരു ക്രിസ്ത്യാനി ആണെങ്കിൽ പോലും എനിക്ക് ഏറ്റവും വലിയ തൃശ്ശൂരിൽ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം ഞാനും പോവും തൃശ്ശൂർ ഈ ഏപ്രിൽ പതിനൊന്നാന്തിയാണ് പത്തൊമ്പതാന്തിയാണ് തൃശ്ശൂർ പൂരം വരുന്നത് തൃശ്ശൂർ പൂരം കാണാനായി എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പല ജില്ലകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നത് അപ്പം അത്രയും വലിയ ഒരു ഉത്സവമാണ് ഞങ്ങളെ തൃശ്ശൂർ പൂരം ഈ പിന്നെ ഈ ഉത്സവങ്ങളും പൂരങ്ങളും തമ്മിൽ മതങ്ങൾ തമ്മിലും മതങ്ങളെ ഐക്യം വളർത്തുകയല്ലേ ചെയ്യുന്നത് മനുഷ്യരുടെ ഐക്യമാണ് വളർത്തുക ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളെ ജില്ലയിൽ ഞാൻ കാണുന്ന കുറേ കാഴ്ചപ്പാടുകൾ